ജലദോഷം ഭേദമാക്കാൻ ഞങ്ങളുടെ ഗ്രാമത്തില് ഒരുപാട് പൊടിക്കൈകൾ ഉണ്ട് ഒരുപാട് വീട്ടു വൈദ്യങ്ങളും നാട്ടു വൈദ്യങ്ങളും ഉണ്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ആവിപ്പിടിക്കുക എന്നുള്ളതാണ് അതായത് വെള്ളം നല്ലൊ നല്ലവണ്ണം തിളപ്പിച്ച് അതിലേക്ക് തുളസി എലയും മഞ്ഞപ്പൊടി മുതലായവ ഇട്ട് ആവി നമ്മള് പിടിക്കുക അത് ജലദോഷം പെട്ടെന്ന് ഭേദമാവാൻ ചെയ്യുന്നൊരു നാട്ടു വൈദ്യമാണ് അതുപോലെതന്നെ മറ്റൊരു പൊടിക്കയ്യാണ് ചുക്ക് ചുക്ക് കൊണ്ടുള്ള കാപ്പി ഉണ്ടാക്കി കുടിക്കുക അതുപോലെ തുളസി വെച്ച് വെച്ചുക്കൊണ്ടുള്ള കാപ്പി ഉണ്ടാക്കി കുടിക്കുക അതുപോലെ അടുത്ത ഒന്ന് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് അത് വെച്ച് ആവിപിടിക്കുക